ഇപ്പോള് ആണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വിത്യാസങ്ങളാണ് ഞാൻ പറയാൻ പോണത് ഇവിടെയാണെങ്കിൽ അ ഭാഷ ഇവിടെ ഹിന്ദി മലയാളം എല്ലാം ഇവിടറിയാം അവിടെ ആവുമ്പോള് ഒരു വല്ലാത്തൊരു ഭാഷയും